ഹലോ അതെ അതെ വളക്കട ആണല്ലോ

അ വളം നമ്മൾ അറിയാമല്ലോ ഇന്നത്തെ കാലത്ത് ഈ രാസവളങ്ങളൊക്കെ ഒരുപാട് ദോഷം ചെയ്യുന്നതാന്ന് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ കാരണം ഇതിൽ നിന്ന് നമ്മൾ ജൈവ വളങ്ങൾ ആണ് പ്രിഫറ് ചെയ്യുന്നത് അത് വ്യക്തിപരമായിട്ട് ഒരു വളക്കടയുള്ള ആളെന്ന നിലയ്ക്ക് ഞാൻ ഇത് പറയുന്നത് ശരിയല്ല കാരണം ഏതു വളവും ഞാൻ വിൽക്കേണ്ടതാണ് പക്ഷേ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന രീതിയിൽ ഞാൻ പറയുന്നത് അ ഈ രാസവളങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ ജൈവ വളങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കീടങ്ങളുടെ ഉപദ്രവം വളരെ കുറവായിരിക്കും നമ്മൾ രാസവളം ഉപയോഗിക്കുമ്പം കീടങ്ങൾ ധാരാളമായിട്ടുണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാൻ നല്ലതാണ് ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പം ജൈവ വളങ്ങളെ പറ്റി

ജൈവവളം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ജൈവവളം കൂട്ടിവച്ച് പല സാധനങ്ങളും ചാണകവും ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെ കുറെ ഇപ്പതാ എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വളങ്ങൾ മിക്സ് ചെയ്തു വച്ചിട്ടുണ്ട് അതെ ആ അതെ അതെ ഒരു ഒരു ചാക്കിന് അതായത് അമ്പത് കിലോ ഉള്ള ഒരു ചാക്കിന് രണ്ടായിരം രൂപ വരെയുണ്ട് അ അതാ കപ്പ ഇടുമ്പം വലിയ കുഴി എടുക്കാറില്ല നമ്മൾ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ വെട്ടി കൂട്ടുകയാണ് അത് കൂനപോലെ കൂട്ടുക ചെയ്യുന്നത് പിന്നെ നമ്മൾ വാഴ ഒക്കെ വയ്ക്കുന്ന പോലെ കുഴി കുഴിച്ചല്ല കപ്പ വയ്ക്കുന്നത് പറഞ്ഞത് മനസ്സിലായോ ആദ്യമേ നമ്മൾ നമ്മൾക്ക് പറമ്പെല്ലാം നല്ലപോലെ കിളയ്ക്കണം കിളച്ച് അതിനകത്ത് പുല്ലെല്ലാം മാറ്റിയതിനു ശേഷം നമ്മൾ ഈ മണ്ണിങ്ങനെ കൂന പോലെ കൂട്ടണം ഓരോ ഉദ്ദേശം ഒരു എട്ട് പത്ത് ഇഞ്ചു പൊക്കത്തിൽ കൂന കൂന പോലെ കൂട്ടണം കൂട്ടിക്കൂട്ടി കഴിയുമ്പോൾ കപ്പ ചെരിയുന്ന സമയത്ത് സാധാണ രീതിയിൽ കപ്പ ഇടുമ്പോഴാരും അങ്ങനെ വളം ഇടാറില്ല ഇത് കൂന കൂട്ടി മഴ തുടങ്ങുന്ന സമയത്ത് കപ്പ തണ്ടു മുറിച്ച് ഇത് കുത്തി വച്ചിട്ട് കുറച്ചു കുറെ ദിവസം കഴിയുമ്പോൾ ഇത് കിളുക്കുവല്ലോ കിളുത്തു കഴിഞ്ഞ് ഉണങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലെല്ലാം ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടി രണ്ടുമൂന്ന് പിടി ചാണകപ്പൊടി ഇട്ടാൽ മതി ചുറ്റുമിട്ടിട്ട് മണ്ണ് വെട്ടി കൂട്ടുക അപ്പോൾ നമ്മൾ മണ്ണ് വെട്ടി കൂട്ടി കൂടുതലും നല്ല കൂന നല്ല വലുപ്പം ഉണ്ടെങ്കിൽ ഈ കിഴങ്ങ് കൂടുതൽ സ്പ്രെഡ് ആവും പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ അത് അ മണ്ണ് നല്ല ഇളക്കം ഉണ്ടെങ്കിലാണ് കൂടുതൽ ഇത് കിഴങ്ങുകൾ ഉണ്ടാകുന്നത് ആ അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് ആ സാധാരണ നമ്മൾ ഒരു മൂന്നടി രണ്ടര അടി മൂന്നടി ഒക്കെ വയ്ക്കുന്ന ചിലത് ഇച്ചിരി കൂടെ അകലത്ത് അടിപ്പിച്ച് ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് കുറച്ച് സ്പെയ്സ് ഇടയ്ക്കൂടെ നടക്കാനും തടമെടുക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്പേസ് ഇടുന്നതാണ് അപ്പോൾ ഒരു ഒരു ഒരു രണ്ട് കപ്പ രണ്ട് അടി ധാരാളം മതി അപ്പോൾ അത് ഏത് തെങ്ങിനോ ആ തെങ്ങ് നമുക്ക് തെങ്ങിന് നമ്മൾ ഈ ഉണക്ക് കാലം ആകുമ്പോഴത്തേക്കും അതിനു മുൻപായിട്ട് തന്നെ നനവുള്ള ഈ തടം വലുതായി വലിച്ചെടുക്കണം വലിയ നല്ല കഴിയുന്നടുത്തോളം വലിപ്പത്തിൽ വലിച്ചെടുക്കണം തടം എന്നിട്ട് നമുക്ക് അതിനകത്ത് വളമെല്ലാം ഇട്ട് ഇട്ട ശേഷം അ വളം ഇടുന്നത് തെങ്ങിനിടാൻ പറ്റിയ പല വളങ്ങളുമുണ്ട് എല്ലുപൊടി പത്തൊമ്പത് പത്തൊമ്പത് പറഞ്ഞുള്ള ഒരു വളമുണ്ട് ആ എല്ലുപൊടി എല്ലുപൊടി നല്ലതാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ചാൽ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഈ കീടങ്ങളുടെ ശല്യം ഉണ്ടാവത്തില്ല പറഞ്ഞത് മനസ്സിലായോ വേപ്പിൻ പിണ്ണാക്ക് ഉപ്പ് ഒക്കെ തെങ്ങിന് ഒത്തിരി നല്ലതാണ് അത് ഇട്ടു കഴിഞ്ഞതിനു ശേഷം മണ്ണിന് മണ്ണിനോ മണ്ണിന് ദോഷം ചെയ്യില്ല തെങ്ങിന് ഇത് ഉപ്പ് ഇടാറുണ്ട് അത് കീടങ്ങളൊക്കെ നശിക്കാനും ഒക്കെയായിട്ടാണ് തെങ്ങിന് അത് ചില ആൾക്കാർ ഈ മീനിൻ്റെ ഉപ്പ് അതായത് ഉണക്കമീൻ സംഭരിച്ചു വയ്ക്കുന്ന ഉപ്പുണ്ട് അ അതാ എന്തോ ആ ഉപ്പ് ഒത്തിരി ഗുണമുള്ള സാധനം അത് മീനിൻ്റെ അംശം എല്ലാം ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിനൊത്തിരി ഗുണമുള്ള സാധനമാണ് സാധാരണ കൃഷിക്കാരെല്ലാം എല്ലാം തെങ്ങ് കൃഷിക്കാരെല്ലാം പിന്നെ മീനുപ്പ് വാങ്ങിച്ചു ഇടാറുണ്ട് അപ്പോൾ അത് ദുശ്യം ഒരിക്കലും ദൂശ്യമുള്ളതല്ല ഗുണമുള്ളതാണ്

അതാ ഞാൻ പറഞ്ഞത് മൂന്നു പ്രാവശ്യം മൂന്നു പ്രാവശ്യം പറയാണെങ്കിൽ നാലു മാസം കൂടുമ്പോഴേക്കും രണ്ടു പ്രാവശ്യം ആറുമാസം കൂടുമ്പോൾ ഇടുക അങ്ങനെ ചെറിയ ചെറിയ തൈ ഒക്കെ ആവുമ്പോൾ മൂന്ന് പ്രാവശ്യം ഇടുന്നത് ഒത്തിരി നല്ലതാണ് നേരെ മറിച്ച് വലുതായ തെങ്ങാണെങ്കിൽ ഒരു വർഷം രണ്ട് പ്രാവശ്യത്തേക്ക് ഇട്ടാൽ മതി പിന്നെ അതിൽ ഏറ്റവും പ്രധാനം ഈ ഒണക്ക് കാലത്ത് കുറച്ച് വെള്ളം നനയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒത്തിരി നല്ലതാണ് വലുതായിട്ട് ഉണക്ക പുഴുവിനെ ബാധിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും വെള്ളം അ അ വണ്ടിന് സാധാരണ രീതിയിൽ അതിനെ ഈ വണ്ട് രണ്ട് ഇനം ഉണ്ട് ഒന്ന് കറുത്തതും ഒന്ന് ചൊമലയാണേ ഈ കറുതാണെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ അ പിന്നെ നാമ്പിലെ കുറച്ച് നീര് കുടിച്ചിട്ട് അത് അങ്ങ് പോകും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല നേരെ മറിച്ച് ചുവപ്പ് നിറമുള്ള ഒരു പിന്നെ വണ്ടു ഉണ്ട് അത് തെങ്ങിൽ കയറിയാൽ അതിൻ്റെ അടിവേര് വരെ അത് അതിനകത്ത് ഇരുന്ന് ഇരുന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായി അത് ഏറ്റവും താഴെ മണ്ണിൽ വരെ വന്നിട്ട് അത് നശിപ്പിച്ചിട്ടെ പോകത്തുള്ളൂ അപ്പം അതിനെ അതുങ്ങളെ ഒന്നും ചെയ്യാൻ കൂടെ കൂടെ അതിനെ ഈ പണ്ട് കാലത്ത് ചൂടു ചാരവും ഉപ്പും ഒക്കെ ഇടുവായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ വണ്ടിനൊന്നും അത് ഏൽക്കുകയില്ല അതിനെ വാസ്തവത്തിൽ അതിന് വേണ്ടി പ്രത്യേകതരം വിഷങ്ങളുണ്ട് പക്ഷേ ആ വിഷം ഇവിടുന്ന് നിരോധിച്ച ഫ്ലൂരിഡാൻ എന്നൊരു വിഷമുണ്ട് അത് നിരോധിച്ചിരിക്കുകയാന് ഇവിടെ കിട്ടില്ലെന്ന് തോന്നുന്നു ഇപ്പം അതൊക്കെ പണ്ടുകാലത്ത് ഇടൂ അതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഒരു ഒരു രണ്ടു മാസം മൂന്നുമാസം കൂടുമ്പോൾ ഇടുവാണെങ്കില് ഇത് ഇതിൻ്റെ ശല്യം ഉണ്ടാവത്തില്ല പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ വലിയ പാടാണ് ഒരെണ്ണത്തെ കയറി കഴിഞ്ഞാൽ അടുത്ത തെങ്ങിലും കയറും ആ മഴക്കാലത്ത് വളവിടുന്നത് നല്ലതാണ് ഇപ്പം ഈ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഇടുന്നത് മഴ മഴക്കാലത്ത് നല്ലതല്ല ഒണക്ക് കാലത്ത് ഇടുന്നതാണെ മഴക്കാലത്ത് ഇട്ടാൽ അത് പെട്ടെന്ന് പോവും പിടിക്കത്തില്ല അതെ വണ്ടിയെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മാസത്തിലൊരിക്കൽ ഇത് ചെയ്തു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് നശിച്ചുപോവും തെങ്ങ് നശിച്ചുപോവും ആ ജൈവവളം നമ്മളിതുപോലെ ഞാൻ ചാണകപ്പൊടി ഇട്ടു തന്നെ ഉള്ള ഉണ്ട് പിന്നെ ചാ ചാണകപ്പൊടി ആട്ടിൻകാട്ടം മറ്റ് വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതുവൊണ്ട് ഏത് വേണമെങ്കിലും തരാം ആ കുഴപ്പമില്ല വന്നോളൂ എല്ലാം സ്റ്റോക്കുണ്ട് എപ്പോൾ വേണമെങ്കിലും വന്നാ മതി ആ വിളിച്ചിട്ട് വന്നാൽ മതി